ഞങ്ങളുടെ പ്രദേശത്ത് മതപരമായിട്ടുള്ള പരിപാടികളെന്നു പറയുന്നുണ്ടെങ്കിൽ വിഷു നടക്കാറുണ്ട് വിഷുക്കളിയെന്ന് പറയുമ്പോൾ വിഷുയെന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടെ ഒരു പരിപാടിയാണല്ലോ സാധാരണ രാവിലെ എണീച്ച് കണി കാണുക കണി കണ്ടിട്ട് ഞങ്ങൾ കൃഷ്ണനെ കണി ഒരുക്കുക അമ്പലത്തിലൊക്കെ പോവുക വന്ന് സദ്യയൊക്കെ കഴിക്കുക അതൊക്കെ നമ്മുടെ മതപരമായിട്ടുള്ള ചടങ്ങുകളാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിലക്കെ പോകുമ്പോൾ നമുക്കവിടുന്നെല്ലാവരുടേയും കൈനീട്ടമൊക്കെ കിട്ടും അതാണീ പ്രദേശത്ത് നടക്കുന്നത് പിന്നെ മുസ്ലിംസുകളുടെ ഭാഗത്തു നിന്നുള്ള പെരുന്നാള് ഉത്സവം നടക്കാറുണ്ട് അവരുടെ ഭാഗമായിട്ട് പെരുന്നാളിൽ ഭക്ഷണമൊക്കെ വച്ച പരിപാടികളൊക്കെ നടക്കാം പിന്നേ ഈ നബി ദിനം നബിദിനത്തിൻ്റെ ഭാഗമായിട്ടവരുടെ പള്ളികളിലവിടെയൊക്കെ ഇന്നലെ ദഫ്മുട്ട് പരിപാടികൾ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ നടത്താറുണ്ട് പിന്നെ വേല വേലകൾ നടത്താറുണ്ട് വേലകളെന്നു പറയുമ്പോൾ ഓരോ ഓരോ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണെങ്കിൽ പോലും അമ്പലങ്ങളിലാണ് ശരിക്കും സാധാരണ വേല കൊടി കയറുന്നത് അപ്പോൾ അമ്പലത്തിൽ പോകൂവാൻ എല്ലാവർക്കും പറ്റാത്ത അവസ്ഥയിൽ ഈ ആൾക്കാരിങ്ങനെ ഒരുമിച്ച് പോയിട്ടതൊരു മതപരമായിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് മാറ്റാറുണ്ട് അതൊക്കെയാണ് ഞങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന പരിപാടികൾ